നമ്മുടെ ജീവിതത്തിൽ പൊതുവിജ്ഞാനം ചിന്തയും വർദ്ധിപ്പിക്കാൻ പത്രങ്ങളും മാധ്യമങ്ങളും തന്നെയാണ് ഏറ്റവും നല്ല മാർഗ്ഗം പത്രത്തില്നിന്നും അന്നന്നത്തെ ഉള്ള ന്യൂസ്കള് എല്ലാ രാജ്യങ്ങളുടെയും മെയിൻ തലക്കെട്ടുകളോട് കൂടിയാണ് വരുന്നത് അപ്പം നമുക്ക് ഈ ന്യൂസുകള് അറിയാൻ പറ്റും നവമാധ്യമങ്ങളും അങ്ങനെയാണ് ഏത് രാജ്യത്തെയും ഏത് സ്ഥലത്തെയും ചെറിയ ചെറിയ ന്യൂസ്കള് പോലും നമുക്ക് ഇവിടെ പർവതീകരിച്ച് കാണിക്കുകയും അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പത്രമാധ്യമങ്ങളിൽക്കൂടെയും വാർത്താ മാധ്യമങ്ങൾ വഴിയാണ് നമ്മളറിയുന്നത് അത് എത്ര അറിഞ്ഞിരിക്കുന്നതും എല്ലാം കൊണ്ടും നല്ലതാണ് ആനുകാലിക സംഭവങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കാനും അറിവില്ലാത്തവർക്ക് പറഞ്ഞ് കൊടുക്കുവാനും ഇത് നമുക്കുപകരിക്കുന്ന വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ആനുകാലിക സംഭവങ്ങൾ പത്രത്തിലൂടെയാണ് ആനുകൂലിക സംഭവങ്ങൾ കൂടുതൽ പറയുക നവമാധ്യമങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പത്രമാധ്യമങ്ങൾ നമുക്ക് ആനുകാലിക സംഭവങ്ങളും കൂടുതൽ വിവരിച്ച് തരുന്നു ബൗദ്ധിക ചിന്ത വർദ്ധിപ്പിക്കാൻ നമ്മുടെ പത്ര മാധ്യമം ഏറെ ഉപകാരപ്രദമാണ് നവമാധ്യമങ്ങളും അതുപോലെത്തന്നെ നവമാധ്യമങ്ങളിലൂടെയും പത്ര കഥ വായിക്കാം നല്ല നല്ല ആർട്ടിക്കിൾസ് വായിക്കാം അങ്ങനെയെക്കെ നമുക്ക് ഉപകാരപ്പെടുന്നു നവമാധ്യമങ്ങളിലൂടെ തന്നെ എന്ന് പറയുമ്പം യൂട്യൂബ് പോലെയുള്ള ചാനല്കൾ നമുക്ക് ഏറെ ഉപകാരമാണ് പൊതുവിജ്ഞാനവും ബൗദ്ധികവും എല്ലാം അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ വാർത്തകൾ നമ്മൾക്ക് കേൾക്കാനും അറിയാനും ഏറ്റവും ഉപം പുതുതലമുറ ആശ്രയിക്കുന്നത് നവമാധ്യമങ്ങളെയാണ് അതുപോലെ പഴയ തലമുറ കൂടുതലും പത്രങ്ങളെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിരിക്കാൻ കൊണ്ടിരിക്കുന്നത് ഒരുപാട് പഴയതല്ല എങ്കിലും ഒരു എഴുപതിന് മേളിലോട്ടുള്ള ഏജ് ഗ്രൂപ്പുള്ളവർ പത്രത്തെ ആശ്രയിച്ചിരിക്കണം അതിന് തഴോട്ടുള്ളവരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയാസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആനുകാലിക സംഭവങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാൻ സാധിക്കും അതുവഴി നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് ആനുകാലി സംഭവങ്ങളിൽ നമ്മൾ കേട്ടിരിക്കുകവഴി നമ്മുടെ തലമുറ ഏത് എങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്കറിഞ്ഞിരിക്കാൻ വളരെ നല്ലതാണ് പത്രമാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് ന്യൂസുകള് നമ്മൾ അറിഞ്ഞിരിക്കാത്ത സ്ഥലത്തുള്ള കാര്യങ്ങളല്ല പറഞ്ഞു തരുന്നു അതുപോലെയാണ് നവമാധ്യമങ്ങളും നമ്മുടെ പൊതുവിജ്ഞാനത്തിനും ബൗദ്ധിക ചിന്തയും വർദ്ധിപ്പിക്കാനും പത്രമാധ്യമങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത് പത്രമ മാധ്യമത്തിൽ വരുന്ന ന്യൂസുകൾ നമുക്ക് ഓർത്ത് വെക്കാം എടുത്ത് സൂക്ഷിച്ച് വെക്കാം നവമാധ്യമങ്ങൾ അതിൽനിന്ന് വരുന്ന ന്യൂസുകൾ തലേ പിറ്റേ ദിവസം ആകുമ്പോൾ അത് അപ്രസക്തമാവുന്നു എന്നൊരു കാര്യമുണ്ട് പത്രം പോലെയുള്ള മാധ്യമങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാം സോഷ്യൽ മീഡിയ വഴിയുള്ള ന്യൂസുകൾ അവിടെ കിടക്കുമെങ്കിൽ തന്നെ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന് വളരെ ഒരു നല്ല കാര്യമാണ് ആനുകാലിക സംഭവങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ വലിയ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കാനും അവർക്ക് വിശദീകരിച്ച് കൊടുക്കാനും കഴിയും പഠനത്തിൽ മറ്റ് സാമൂഹികമായ ജീവിതത്തിൽ അവർക്ക് പറഞ്ഞ് കൊടുക്കാൻ നമ്മൾ പറഞ്ഞ് കൊടുക്കാം പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ പത്രം തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പണ്ട് മുതലേ ഉള്ളതും നമ്മൾ പണ്ട് ആശ്രയിച്ചിരുന്നതും പത്രം പോലെയുള്ളതാണ് പത്രം ടെലിവിഷന് കണ്ടിരിക്കേണ്ടത് പത്രമാണ് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് പോലെയുള്ളത് കൂടുതലും ആൾക്കാർ വിജ്ഞാനത്തിനേക്കാളുപരി വിനോദത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പോലെയാണ് അപ്പം നമ്മുടെ നമ്മുടെ ബൗദ്ധിക ചിന്ത വർദ്ധിപ്പിക്കാനും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനും പത്രം ടെലിവിഷൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ് നല്ലത് പത്ര വായനയാണ് ഏറ്റവും നല്ലത് പത്രം വായിക്കുമ്പം നമുക്കതിലുള്ള കണ്ടന്റ് നമുക്ക് കിട്ടുകയും നമ്മുടെ വായിക്കാനുള്ള ഒരു പ്രവണത കൂട്ടുകയും ചെയ്യുന്നു വായനയിലൂടെ നമുക്ക് ഒരുപാട് വിജ്ഞാനം കിട്ടുന്നു നമ്മുടെ റീഡിംഗ് ഇത് കൂട്ടിത്തരുന്നു അപ്പം വായിക്കുക വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ച് വളർന്നാൽ വളയും വായിക്കാതെ വളർന്നാൽ വള എന്ന് ഇപ്പം നമ്മുടെ ബൗദ്ധികമായ ചിന്തകളിൽ പത്രവും നവമാധ്യമങ്ങളും ഉപയോഗിക്കുക രണ്ടും രണ്ട് കാലഘട്ടത്തിലും രണ്ട് ഇതിലുള്ള ആളുകളാണ് നമ്മുടെ പത്രം നവമാധ്യമങ്ങള് വഴി വഴിതെറ്റി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്നല്ല അക് അതുപോലെയുള്ള ന്യൂസുകളാണ് നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പത്രം വായിച്ച് വഴിതെറ്റിപ്പോയെന്നോ ടെലിവിഷൻ കണ്ട് വഴിതെറ്റിപ്പോയെന്നോ നമ്മളാരും ഇന്നേവരെ കേട്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ദിവസ് ലൂടെ പരിചയപ്പെട്ട് കുട്ടികൾ വഴിതെറ്റിപ്പോയത് നമ്മളൊരുപാട് കേട്ടിട്ടുണ്ട് പത്രമാധ്യമങ്ങൾ തന്നെയാണ് നമുക്ക് ബുദ്ധിക്കും വിനോദത്തിനും വിജ്ഞാനത്തിനും നല്ലതാണ് ആനുകാലിക സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കേട്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും വളരെ വളരെ വളരെ നല്ലൊരു കാര്യം ആണ് ചുറ്റുപാടും മനുഷ്യനെന്ന് പറയുന്നത് ഒരു സാമൂഹി ജീവിയാണ് അപ്പം സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക ആനുകാല പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കാൻ ആനുകാലിക സം സംഭവങ്ങളറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമുക്കറിയത്തില്ലെങ്കിൽ ആനുകാലിക സംഭവങ്ങളിൽ അറിയാതെയിരിക്കുമ്പോഴ് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥ വരും നമ്മൾ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് പഠിച്ച് ഇരിക്കുകയാണെങ്കിൽ അഭിപ്രായം പറയാനും തെറ്റുകൾ തിരുത്താനും തെറ്റുകൾ തിരുത്തി കൊടുക്കുവാനും കഴിയുമെന്ന് വിചാരിക്കുന്നു ആനുകാലിക സംഭവങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നവമാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത് നമ്മുടെ തൊട്ടടുത്ത കാര്യങ്ങൾ വരെ നമ്മളറിയുന്നത് നവമാധ്യമങ്ങളിൽ കൂടെയും വാർത്താമാധ്യമങ്ങളിൽ കൂടിയുമാണ് പണ്ടൊക്കെ ടെലിവിഷൻ പത്രം വരാനൊക്കെ നോക്കിയിരിക്കുന്ന ഈ കാലത്ത് എത്ര ദൂരെയുള്ള സ്ഥലത്തുള്ള സംഭവവം ആണെങ്കിലും അപ്പപ്പം അറിയുവാൻ നമുക്ക് ഇപ്പോഴുള്ള നവമാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നു ആനുകാലിക സംഭവങ്ങളും അങ്ങനെ തന്നെ പണ്ടെക്കെ ടെലിവിഷന് പോലും ഇല്ലാത്ത കാലത്ത് വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇന്ത്യ ജയിച്ചെന്നറിയണമെങ്കിൽ പത്രം കിട്ടണം ഇന്നിപ്പം നമുക്ക് ലൈവായിട്ട് വീടുകളിൽക്കൂടെ ഇരുന്ന് കളി കാണുവാനും നവമാധ്യമങ്ങൾ നമ്മെ സഹായിക്കുന്നു ഇന്നു മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രസക്തമായിരിക്കുന്നു ഇപ്പം നമുക്ക് നവമാധ്യമങ്ങളില്ലാതെ ജീവിതം തന്നെ നടക്കുകേല എന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വാർത്തയും വിനോദത്തിനും വിജ്ഞാനത്തിനും എല്ലാം നവമാധ്യമങ്ങൾ ഏറെ നമുക്ക് ഉപകാരപ്രദമാണ് നല്ലതിന് ചീത്തയായിട്ടും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതൽ ആളുകൾ നന്മയ്ക്ക് വേണ്ടിത്തന്നെ ഉപയോഗിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു ആനുകാ സംഭവങ്ങൾ അറിയുന്നതിന് നവമാധ്യമങ്ങൾ തന്നെയാണ് നല്ലത് നമുക്ക് ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തുന്നതും നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും നവമാധ്യമങ്ങൾ ഒരുപാട് സഹാ